ഹലോ ആ പറഞ്ഞോളൂ ആ ആ ആരാണ് അതെ ആരാണ് ആരാണ് വിളിക്കുന്നത്

ആ ഓക്കെ ഓക്കെ ആ ഇപ്പോൾ ആ എന്ത് ആ താങ്കളുടെ വ്യൂ എന്താണെന്നാദ്യം പറഞ്ഞോളൂ ആ അതിനെ പറ്റി

ആ അതെ അതെ ആ അതെ ആ അതെ ആ ഇപ്പോൾ ആ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലാതെ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് സിരീസൊക്കെ ഇറങ്ങുന്നുണ്ട് മുന്നെ അങ്ങനെ ആ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ബേസ്ഡായിട്ടുള്ള സിരീസും ഒക്കെയാണ് ഒ ടി ടിയിൽ റിലീസായിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം മലയാളത്തിലായിരുന്നാൽ ഇപ്പോൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അല്ലാണ്ട് ഈ ഹോട്ട്സ്റ്റാറ് പോലുള്ള ആ ആപ്പ്സിലൊക്കെ ആ ഇതിന് മലയാളം സിരീസൊക്കെ റിലീസാവുന്നുണ്ട് അപ്പോൾ അതിലും ഒരുപാട് പേര് കാണുന്നുണ്ട് ആ മൂവീസല്ലാണ്ട് സിരീസും കണ്ട് അന്നുതന്നെ വ്യൂസ് ഒരുപാട് കൂടുന്നുണ്ട് അപ്പോൾ ആതും നല്ല റേറ്റിംഗ്സാണ് കിട്ടുന്നത് ഇപ്പോൾ പൊതുവെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ അതെ ആ അതെ അതെ എല്ലാവരെയും ആ ഇപ്പോൾ ടെലഗ്രാം പോലുള്ള ആപ്പ്സിലൊക്കെ ഇപ്പോൾ അവൈലബിളാണ് ആ പെട്ടെന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ജസ്റ്റൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഫയൽസ് ആ നമുക്ക് കിട്ടുന്നുണ്ട് അവൈലബിളായതുകൊണ്ട് ആ

അതെ വരണമെന്നില്ല അതെ അതെ അതെ ഇപ്പോൾ ആ അല്ല സഹായിക്കുന്നുണ്ട് ആ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ ഒരുപാട് ആ പടങ്ങളിപ്പോൾ അടുത്തിടെ തന്നെ ഒ ടി ടിയിൽ റിലീസായിട്ടുണ്ട് അപ്പോൾ ആളുകൾ അത് കാണുന്നുണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ആ അങ്ങനെ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ സാധാരണ ഇപ്പോൾ തിയേറ്ററിലുള്ള വ്യൂസ് പോലെ തന്നെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോംസിലും ഉള്ള വ്യൂസിൻ്റെ എണ്ണവും കൂടുന്നത് എന്നാണെനിക്ക് തോന്നുന്നത്

അതെ അതെ അതെ അതെ ഇപ്പോൾ ആ ആ ഇപ്പോൾ ആ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലായിടത്തും വൈഫൈയുടെ അവൈലബിളിറ്റി ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഇത് സാധാരണ മൊബൈൽ ഡേറ്റ ആ വരുന്ന സമയത്ത് ആളുകൾ മടിക്കും ആ ഈ നിങ്ങളുടെ ഫയൽ ഇത്രയും എം ബി ഉള്ള ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഇരുന്ന് കാണാനും ഒക്കെ മടിക്കും ചില ആൾക്കാർ പക്ഷെ ഇപ്പോൾ വൈഫൈയുടെ ആ ഒരു ഇത് കൂടി വരുന്നതുകൊണ്ട് അത് ആ ഇപ്പോൾ ഒരു ഒരു നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ആ ഒരു മാസത്തേക്ക് ഇത്ര രൂപ അടച്ചാൽ നമുക്ക് അൺലിമിറ്റഡായിട്ട് വൈഫൈ കിട്ടും ആ ഒരു സമയത്ത് അവർ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്ത എത്ര എം ബി ഉള്ള അല്ലെങ്കിൽ എത്ര കൂടുതലായിട്ടുള്ള ഫയലായിരുന്നാലും ഈ ഒരു വൈഫൈ കണക്ഷനുപയോഗിച്ച് അത് ഡൗൺലോഡ് ചെയ്ത് ആൾക്കാരിപ്പോൾ കാണുന്നുണ്ട് ആ ഒരു ആ ഇങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിനെയാണ് കൂടുതലും ഇപ്പം ആശ്രയിച്ച് വരുന്നത് ആ ഇപ്പോൾ നമ്മൾ ഇപ്പം ആ എന്താ ഒക്കുപ്പേഷൻ്റെ കാര്യത്തിലായിരുന്നാലും ജോലി ഒക്കെ തേടിപ്പോവുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു തീയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള സമയം കാണില്ല അപ്പോൾ ഒഴിവ് നേരങ്ങളിൽ ഇങ്ങനെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോംസായിരിക്കും അവരും ആശ്രയിക്കുന്നത് അതെ ആ ആ ഓക്കെ താങ്ക് യൂ ആ എനിക്കും സന്തോഷം ഉണ്ട് ആ താങ്ക്സ് ഓക്കെ ബൈ